ആ അതെ പറയൂ ഇത് വേണൂസ് മൊബൈൽ ഷോപ്പാണ് മൊബൈൽ റിപ്പയറിംഗ് ഫെസിലിറ്റി ഓക്കെ ഓക്കെ മാമിൻ്റെ ഫോണിൻ്റെ മോഡലും ബാറ്ററീടെ മോഡലൊക്കൊന്ന് പറയാൻ പറ്റോ ഓക്കെ ഓക്കെ അതിലൊരു റേറ്റാണ് ഫോൺ വരണതല്ലേ ഓക്കെ അപ്പോൾ അത് ഇപ്പോൾ വരുന്ന എല്ലാ ഫോണിനും ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങൾ കാണുണ്ട് മദർ ബോർഡിനെന്തേലും കുഴപ്പമുണ്ടോ ഫോണിൻ്റെ ആ ഓക്കെ ചിലപ്പോൾ ഡിസ്പ്ലേടെ പ്രശ്നം വരാൻ ചാൻസുണ്ട് അതുകൊണ്ടാണ് ഞാൻ മാമിൻ്റടുത്ത് ചോദിച്ചത് അങ്ങനെന്തേലും ഇഷ്യൂസ് കാണണുണ്ടോന്ന് ഓക്കെ എടുക്കൂ ആ പറയൂ മാഡം ആ ഓക്കെ ഓക്കെ ഇവിടെ വന്നിട്ടെന്തായാലും ചെക്ക് ചെയ്യാം മാമിനെപ്പളാ ഫ്രീയാവാ ഷോപ്പിലോട്ട് വരാൻ ഓക്കെ ഇവിടെ എല്ലാ ദിവസവുമുണ്ട് മൺഡേ ടു സൺഡേ എല്ലാ എല്ലാ ദിവസമുണ്ട് നമ്മളെല്ലാ ദിവസം ആ അവൈലബിളാണ് ആ ഇതൂന്ന് പറഞ്ഞാൽ മാമിനിപ്പോൾ ഹൈ ക്വാളിറ്റിയാണ് വേണ്ടതൂന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ക്വാളിറ്റിയുണ്ട് ആ ലോ ക്വാളിറ്റിയുണ്ടപ്പൊ ഏതൊക്കെയാണ് വേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനനുസരിച്ച് റേറ്റ് കൂടും കുറയും ചെയ്യും അതിപ്പോൾ ഓക്കെ ഓക്കെ ഇതിപ്പം മാമിന് റീപ്ലേസ്മെൻറ്റാണാവശ്യന്നുണ്ടെന്നുണ്ടെങ്കീ അതും നമുക്ക് ഒരോപ്ഷനായിട്ടുണ്ട് കാരണം ഫോൺ മേടിച്ചൊര്കൊല്ലല്ലായിട്ടുള്ളൂ മെ ബി അപ്പോൾ നമുക്കതിന് ചെയ്യാൻ പറ്റും ആ ഓക്കെ ചിലപ്പോൾ അതിപ്പോൾ വരണ ബാറ്ററികൾടൊക്കെ ഇഷ്യുവായിരിക്കും കാരണം ഇപ്പോൾ ഒരുപാട് ഫോണിനിങ്ങനെ വരുന്നുണ്ട് ചിലപ്പോൾ അതിൻ്റെയാവും അതാണ് ഞാൻ റീപ്ലേസ്മെൻറ്റ് ഒരോപ്ഷനായിട്ട് പറഞ്ഞതപ്പോൾ നമുക്കത് ഒന്ന് വിളിച്ച് നോക്കാം ആ ഇതിപ്പോൾ പുതിയ ബാറ്ററി ഓഡറ് ചെയ്യാണുന്നുണ്ടെങ്കീൽ അതൊരു എട്ട് ടൂ പത്ത് ദിവസം വരെ എടുക്കും എടുക്കും മാഡം എന്തായാലും അതെ ഓക്കെ ഓക്കെ ആ ശരി എന്നാൽ ഓക്കെ